നമുക്കിവിടെ പിന്നെ കുഴപ്പമില്ലാത്ത രീതിയില് കൃഷി ഉണ്ട് നമുക്ക് തെങ്ങ് തെങ്ങാണ് നമ്മുടെ മെയിന് ആയിട്ടുള്ള ഇത് അപ്പം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയില് ഇപ്പം തെങ്ങായാലും പിന്നെ കപ്പ പൂള പൂളയില്ലേ പൂള പിന്നെ വാഴ അതൊക്കെയാണ് വച്ചേക്കുന്നത് നേന്ത്ര പിന്നെ ചേമ്പുണ്ട് ചേനയുണ്ട് അതൊക്കെയാണ് നമ്മുടെ കൃഷി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് വരള്ച്ച തെങ്ങിനൊക്കെ നമ്മള് തടമെടുത്ത് വളം കൊടുക്കും അങ്ങനെയൊക്കെ വലിയ വരള്ച്ച വരുമ്പം നമ്മളേ പമ്പ് സെറ്റൊക്കെ എടുത്തിട്ട് അങ്ങ് വെള്ളമങ്ങ് അടിക്കും നമുക്ക് അങ്ങനെ വെള്ളം നനച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വലിയ വരള്ച്ചയൊന്നും വരില്ല പിന്നെ മഞ്ഞുവീഴ്ച അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ചുഴലിക്കാറ്റോ അങ്ങനെ ഒന്നും ഇല്ല പിന്നെ വെള്ളപൊക്കം വരാറില്ല വരള്ച്ചയുണ്ട് വരള്ച്ചയാണ് നമ്മുടെ ഈ ഏറ്റവും കൂടുതല് ബാധിക്കുന്ന ഒന്ന് കൃഷിയില് ഏറ്റവും കൂടുതല് ബാധിക്കുന്നത് പിന്നെ കാലാവസ്ഥയിലെ മാറ്റം ഇപ്പത്തെ പണ്ടത്തെ പോലെയുള്ള ഒരേ കാലാവസ്ഥ അല്ല ചിലപ്പം ഈ ചുഴലിക്കാറ്റും അതും ഇതൊക്കെ വരുമ്പം നിര്ത്താതെയുള്ള മഴ ക പിന്നെ അതൊക്കെയാണ് നമ്മളെ ബാധിക്കുന്നെ പ്രതീക്ഷിക്കാതെയുള്ള മഴകളൊക്കെ വരുമ്പഴേ അല്ലാതെ വലിയ കുഴപ്പം ഒന്നുമില്ല നഷ്ട നഷ്ടങ്ങള് കൈകാര്യം ഒക്കെ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലാന്നല്ല ഉണ്ട് നമ്മള് മണ്ണിനു പണിയെടുത്താൽ നമുക്ക് അധ്വാനത്തിനുള്ള കൂലി കിട്ടും മണ്ണ് തരുന്ന മണ്ണ് ചതിക്കില്ലെന്നാണ്